കുട്ടികളുടെ സ്കൂള് പ്രവേശനത്തിന് ഫീസ് ഫീസ് ഒക്കെ അങ്ങനെ നമുക്ക് വേർതിരിച്ച് പറയാൻ സാധിക്കുന്നതല്ല കാരണം ഓരോ സ്കൂൾ അനുസരിച്ച് ഇരിക്കും അവരുടെ ഫീസ് വാങ്ങിക്കുന്നതും നമ്മൾ കൊടുക്കുന്നതും ഈ പ്രൈവറ്റ് സ്കൂൾ ഒക്കെ ആണെങ്കില് ഡൊണേഷന് ഫീസ് അങ്ങനെ ഒരുപാട് ഉണ്ട് ഗവണ്മെന്റില് അങ്ങനെ ഇല്ല എന്നാണ് എന്റെ ഒരു നിഗമനം ഇപ്പം പ്രൈവറ്റ് സ്കൂള് എന്ന് വെച്ചാൽ ഭവൻസ് സെന്റ് തോമസ് അങ്ങനെ അങ്ങനെ ലോര്ഡ്സ് അങ്ങനെ അങ്ങനെ ഒരുപാട് സ്കൂളുകൾ ഉണ്ട് അതൊക്കെ പ്രൈവറ്റ് ആണ് അതിൽ നല്ല ചിലവുകൾ ഫീസുകളും ആണ് വാങ്ങിക്കുന്നത് അതനുസരിച്ച് പിള്ളേരും പഠിക്കുന്നുണ്ട് ഫീസ് എന്ന് അങ്ങനെ ഒരു ആരും ഫീസ് ഒന്നും നോക്കുന്നില്ല പിള്ളേരെ ഭാവി നോക്കി എല്ലാവരും നല്ലോണം കഷ്ടപെട്ട് പഠിപ്പിക്കുന്നുണ്ട് അതനുസരിച്ച് പിള്ളേരും പഠിക്കുന്നുണ്ട് എന്നാണ് എന്റെ വിശ്വാസം ഞാന് പിന്നെ ഓരോ ഘട്ടഘട്ടമായിട്ട് ഫീസ് അട അടച്ചാല് ഒരു പരിധി വരെ നമുക്കത് കുറയ്ക്കാം നല്ല രീതിയില് തന്നെ ഇപ്പം സ്കൂള് തുറന്നത് കൊണ്ട് എല്ലായിടത്തും അഡ്മിഷനും ഫീസും ഒക്കെ ബുക്ക് എല്ലായിടത്തും നല്ല ഇതാണ് അതുകൊണ്ട് എല്ലാരുടെ അടുത്തും നല്ലതായിട്ട് പഠിക്കുക എന്നൊക്കെയുള്ളൂ നല്ല സ്കൂളിലും എല്ലാ സ്കൂളിലും പഠിപ്പിക്കുന്നുണ്ട്